ഹലോ ഹലോ ഏ ഹലോ ആ എവിടുന്നാത് അതേ ഇതെവിടുന്നാ ആ

ആ ആ ആ അത് ശരി ആ ആ ആ ആ അത് ശരി മൂന്നാർക്ക് മ്ടെ ട്രാവൽ ട്രാവൽൻ്റെ ബസ്സ്ണ്ട് മലപ്പുറത്തൂന്ന്

ആ അടുത്താഴ്ച അടുത്താഴ്ച ലാസ്റ്റ് ഉണ്ട് ശനിയാഴ്ച ഏ ട്രിപ്പ്ണ്ട് മൂന്നാർക്ക് ആ ആ അത് ശരി ആ പത്ത് മെമ്പേഴ്സിന് പോകാൻ കഴിയും അവടിപ്പോൾ തണുപ്പാണ് പിന്നെ ഫുഡ്ഡ് അക്കോമഡേഷനൊക്കെ അവിടെ ഉണ്ടാവും പത്ത് വേറെയും ഫാമിലിയുണ്ടാവും പത്ത് വലിയ ബെസ്സാണ് അപ്പോൾ മലപ്പുറത്തൂന്ന് പിക്ക് ചെയ്യും മലപ്പുറത്തൂന്നുള്ളവരെ ആ അങ്ങനെയാണ് അത് അതിൻ്റെ പോക്ക് ഓ ഓ ശരി ശരി